പാലക്കാട് ജില്ലയിലെ കാലാവസ്ഥയക്കുറിച്ച് പറഞ്ഞാൽ മഴ സീസണുകളാണെങ്കിൽ കഠിനമായ മഴയായിരിക്കും കാരണം മഴ തുടങ്ങിയാൽ അതിനെ നല്ല രീതിയില് എല്ലാം വെള്ളം കൂടുകയും അത് വെള്ളപ്പൊക്കം ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെയും ഈ പാലക്കാടിലേക്ക് ഉണ്ടായെങ്കിലും അത് മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായി കൂടുതലായിട്ടൊന്നും ഉണ്ടായില്ല എങ്കിലും മഴ സീസണും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ടുപോയാൽ വേനൽ ഭയങ്കരമായി തീരും കാരണം കഠിനമായ ശൈത്യകാലം ആണ് കാരണം താപനില ഇരുപത്തിരണ്ടും മുപ്പത്തിയാറും നാല്പ്പതുമൊക്കെ വരുമ്പോൾ പക്ഷേ താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ഈ ചൂട് അനുഭവപ്പെടാറുണ്ട് കാലാവസ്ഥയില് ഭയങ്കരം ചൂടനുഭവപ്പെടുന്ന ഒരു പ്രദേശമായിട്ടാണ് ഈ പാലക്കാടിനെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം എന്ന് പറയുന്നത് താപനില കൂടുതലായിരിക്കുന്ന സമയങ്ങളാണ് പാലക്കാട് അവിടെ മഴ വന്നാലും വെയില് വന്നാലും താങ്ങാൻ പറ്റാത്ത ചൂടും തണുപ്പുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുള്ള സ്ഥലമായിട്ടാണ് പാലക്കാട് വേനൽക്കാലമായാല് പാലക്കാട് വെള്ളം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട് വെള്ളം വിലയ്ക്ക് വാങ്ങാനും ഒക്കെ പറ്റും അങ്ങനെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് മഴയിലും മഴക്കാലത്ത് വെള്ളപ്പൊക്കമായിരിക്കും വേനൽക്കാലത്ത് കഠിന ചൂടുമായിരിക്കും ഇതൊക്കെയാണ് പാലക്കാടിനെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങള് ചൂടുണ്ടെങ്കിൽ ചൂട് തന്നെയായിരിക്കും മഴക്കാലമായാല് മഴ തന്നെയായിരിക്കും ഇതൊക്കെയാണ് പാലക്കാടിൻ്റെ സവിശേഷങ്ങളായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്